സാറെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് കുറച്ച് ഓഡ്റ് വന്നു എനിക്ക് കുറച്ച് ഓഡറ് വന്നു അത് അനുസരിച്ചിട്ട് നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കാനാണ് ആ അതാ അ അ അല്ല അ അ ഇവിടെ ആൾ എനിക്ക് ഇവിടെ കസ്റ്റമർ ഇഷ്ടം പോലെ ഉണ്ട് വന്ന് വാങ്ങിച്ചോളും ഞാൻ ഒരു കട പോലെ വച്ചിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളുടേത് വാങ്ങിയിട്ട് നിങ്ങളുടെ നിന്ന് കുറച്ച് ലാഭമുള്ള നിങ്ങൾ എൻ്റേന്ന് എനിക്ക് കുറച്ച് ലാഭത്തിൽ സാധനങ്ങൾ തരണം അവർക്ക് ഞാൻ കൊടുക്കും മറിച്ച് വിൽക്കാനായിട്ട് പലചരക്ക് എല്ലാമുണ്ട് എല്ലാമുണ്ട് ബേക്കറി ഐറ്റം എല്ലാ എൻ്റെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അത് നിങ്ങൾ ആ അതുമുണ്ട് എല്ലാത്തിൽ നിന്നും കുറേശ്ശെ സാധനങ്ങൾ എനിക്ക് ഇപ്പം അവർ ഒരു മണിക്കൂറിന് അകത്ത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്

ആ അതെല്ലാം എനിക്ക് ഒരു ഒരു അമ്പത് കിലോ അരി അങ്ങനെ പല അരിയും ഒരു അമ്പത് കിലോ വീതം വേണം പലചരക്ക് സാധനങ്ങളൊക്കെ എനിക്ക് അ ആ വടി അരി ഒരു അമ്പത് കിലോ വേണം പിന്നേ സുലേഖ എന്ന് പറയുന്ന ഒരു അരിയുണ്ടല്ലോ സുലേഖ അ അത് ജയ അരി ജയ അരി മൂന്ന് ഐറ്റവും വേണം അ അമ്പത് കിലോ വച്ച് വേണം ഉം പിന്നെ ആട്ടമാവ്

ഞാൻ കൊടുക്കുന്നത് അമ്പത്തി രണ്ട് അമ്പത്തി മൂന്ന് രൂപ വച്ച് അവിടെ എത്ര രൂപയാണ് സാർ ഇപ്പം വില ഇന്നത്തെ വില ആ ശരി ആ ഓക്കേ ഓക്കെ ശരി സാറെ നിങ്ങൾക്ക് കുറച്ച് ലാഭമെടുത്തിട്ട് തന്നാൽ മതി അപ്പം വേണമല്ലൊ ഞങ്ങൾക്ക് അ അ അ അ പിന്നെ അ എല്ലാം കവറ് ഒരു ഒരു കിലോ വീതം ഓരോ കവറുകൾ അ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി അങ്ങനെ പല ഐറ്റം അ എനിക്ക് നിറപറ നിറപറ നല്ലതാണ് പിന്നെ ഈ ഇത് കിച്ചൺ ട്രെഷേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇറങ്ങിയിട്ടുണ്ട് കിച്ചൺ ട്രെഷേർസ് അത് ട്രെഷേർസ് അങ്ങനെ ഒരു കമ്പനി ഉണ്ടല്ലൊ ആ ആ അ കമ്പനീടെയാണ് എനിക്ക് താല്പര്യം കേട്ടൊ സാർ ഇവിടെ നിന്ന് അതാണ് കൂടുതലും പോകുന്നത് അത് ഒരു ഓരോ കിലോ വച്ച് എല്ലാത്തിലും ഓരോ കിലോ പാക്കറ്റ് ആ അതെല്ലാം വേണം ആ ഒരു പത്ത് കിലോ പഞ്ചസാര വേണം മൈദ മൈദ ഒരു പത്ത് കിലോ വേണം അങ്ങനെ ഓക്കെ ആ കൊണ്ടു തന്നാൽ വളരെ ഉപകാരം എനിക്ക് കൊണ്ടുവന്നാൽ ഇവിടെ ആളില്ല കേട്ടോ എനിക്ക് കൊണ്ടു തന്നാൽ വളരെ ഉപകാരം ആണോ ആണോ ആ ഓക്കെ സാർ ഓക്കെ സാർ കൊടുക്കാം ഓക്കെ ഓക്കെ സാർ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ റ്റാങ്ക്സ്